പഴയ തലമുറയും യുവതലമുറയും അവരുടെ ആഗ്രഹങ്ങളിലും പ്രവർത്തികളിലും സംസാരങ്ങളിലും എല്ലാം വളരെ അതികം വ്യത്യസ്തരാണ് തീർച്ചയായും ഇതിലുള്ള ഒരു മധ്യതലമുറ ആയിട്ട് എന്നെ ഞാൻ എന്നെ വിചാരിക്കുന്നു ഇവരുടെ ഇടയിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യം തന്നെയാണ് കാരണം പഴയ തലമുറ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിടുള്ള ഒരുപാട് സങ്കല്പങ്ങളും മിത്തുകളും ഉണ്ട് കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ തലമുറ എന്ന് പറയുന്നത് അവർക്ക് പുറത്ത് ഇറങ്ങി രാത്രിയായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്ത് പോകാൻ പാടില്ല അതൊക്കെ അവരവരുടേതായ ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് എന്നാലും യുവതലമുറയിൽ അങ്ങനെയൊന്നുമല്ല പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവരും അവർക്ക് അർദ്ധ സമയം എന്നൊന്നുമില്ല എല്ലാവരും പുറത്ത് പോകും പിന്നെ അതേപോലെ രാത്രി നേരത്ത് കണ്ണാടി നോക്കാൻ പാടില്ല അങ്ങനെ അവർക്ക് അവരുടേതായ ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ട് ഇതില് രണ്ടെണ്ണത്തിലും പെട്ടു പോകാതെ മധ്യതലമുറയുടെ ആൾക്കാരാണ് അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളാണ് കാണാൻ കഴിയുന്നത്